ഞാൻ നമ്മുടെ സർക്കാരിൻ്റെ ഒരു പൊതുമേഖല സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് ഞാൻ തോന്നൂറ്റിനാല് ആയിരത്തിത്തൊള്ളായിരത്തി തോന്നൂറ്റിനാലിലാണ് ജോലിക്ക് കയറിയത് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം അതിൽ ഉല്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ജെല്ലി ഫിൽഡ് ടെലഫോൺ കേബിൾസാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് ട്രാക്കോ കേബിൾസ് എന്നാണ് അത് ഒരു നമ്മുടെ നൂറ് ശതമാനം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖല സ്ഥാപനമാണ് ജെല്ലി ഫിൽഡ് ടെലഫോൺ കേബിൾസ് എന്തിനായിരുന്നു എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നു നമ്മൾ ഈ സാറ്റ്ലൈറ്റുവഴി മൊബൈല് ഉപയോഗിക്കുന്ന കാലത്തിന് മുമ്പായിട്ട് നമ്മൾ ലാന്റ്ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ വീടുകളിലേക്ക് ആവശ്യമായ രീതിയിലേക്ക് ബി എസ് എൻ എൽ വഴി ഒക്കെ മണ്ണിനടിയിലൂടെ കേബിളിട്ട് വന്നിരുന്ന ഒരു ടെക്നോളജിയായിരുന്നു ഉണ്ടായിരുന്നത് ആ ടെക്നോളജിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ബി എസ് എൻ മറ്റേ ജെല്ലി ഫിൽഡ് ടെലഫോൺ കേബിൾസ് അങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഫിനിഷ്ഡ് ആയിട്ട് ഇറങ്ങുന്ന ഒരു പ്രോഡക്റ്റിനകത്ത് ഒരു കേബിളിൽ ഫൈവ് പെയർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കേബിളിൽ അഞ്ച് ഫോണിന് കണക്ഷൻ കൊടുക്കുന്നതു മുതൽ ഒരു കേബിളിനകത്ത് ആയിരത്തി അറുന്നൂറ് പെയർ ആയിരത്തി അറുന്നൂറ് ഫോണിന് കണക്ഷൻ കൊടുക്കുന്ന കേബിള് വരെ നമ്മൾ ഉല്പാദിപ്പിച്ചിരുന്നു അത് ആ അഞ്ച് പെയർ അഞ്ച് ഫൈവ് പെയറ് ടെൻ പെയറ് ട്വന്റി പെയറ് ഫിഫ്റ്റി പെയറ് ഹൺഡ്രഡ് പെയറ് ടു ഹൺഡ്രഡ് പെയറ് ഫോർ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ആയിരത്തി ഇരുന്നൂറ് തൗസന്റ് ടൂ ഹൺഡ്രഡ് തൗസന്റ് സിക്സ് ഹൺഡ്രഡ് ഇങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അത് അതിനു ശേഷം ഇന്ത്യയിൽ ടെക്നോളജി ഡെവലപ്പ്മെന്റ്സ് ഉണ്ടായതിന് ശേഷം നമുക്ക് ഈ പറയുന്ന സാറ്റ്ലൈറ്റ് വഴിയായിട്ട് നമ്മളുടെ ശബ്ദ തരംഗങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കേബിൾ ആവശ്യമില്ലാതെവന്നു അതിനുശേഷം നമ്മുടെ കമ്പനിയിൽ കേബിൾ ആവശ്യമില്ലാതെ വന്നുകഴിഞ്ഞപ്പോൾ ഇതിന് ഉത്പാദനം തീർന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ പവർ കേബിൾസിലേക്ക് മാറി നമ്മൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഉല്പാദിപ്പിക്കുന്ന സ്ഥാപനം സാധനം എന്നു പറയുന്നത് കെ എസ് ഇ ബിക്ക് വേണ്ടിയിട്ടുള്ള പവർ കേബിൾസുകളാണ് അത് നമ്മൾ പറഞ്ഞ എ സി എസ് ആർ കണ്ടക്ടേർസ് അതേപോലെതന്നെ നമ്മുടെ ഏതാണ് എൽ ടി എച്ച് ടി യു ജി കേബിളുകളാണ് നമ്മൾ ഉല്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് കൂടാതെതന്നെ നമുക്ക് വീട് വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൌസ് വയറിംഗ് കേബിളും ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതാണ് ഇന്നിപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ഉല്പാദിപ്പിക്കുന്ന കേബിളുകളുടെ ഒരു പ്രത്യേക വിവരണം ഇത് നല്ല ഗുണനിലവാരമുള്ള നമ്മുടെ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നിറങ്ങുന്ന കേബിളുകളാണ് ഈ കേബിള് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ആവിശ്യമായ രീതിയിലേക്ക് ഉപകാരപ്രദമാകുന്ന ഒരു നല്ല കേബിള് ആണ് വീട് വയർ ചെയ്യുന്നതിനും അതേപോലെതന്നെ കെ എസ് ഇ ബിക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ള കേബിളുകളാണ് നമ്മൾ ഉല്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്ത മുപ്പത് വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ